വാർത്തകൾ ശ്രദ്ധിക്കാൻ ഞാൻ യുവ തലമുറ എന്നല്ല എല്ലാവരേയും എൻ്റെ വീട്ടിലാണെങ്കിലും ഞാൻ എല്ലാവരേയും നിർബന്ധിക്കാറുണ്ട് ഞാൻ പള്ളിയിൽ ഞാൻ ഒരു പള്ളിയുടെ കൈക്കാരനാണ് ഞാൻ ഇവിടെ വരുമ്പോഴാണെങ്കിൽ ഞാൻ പല വർത്തകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാറുണ്ട് അതെന്നാ വായിക്കാഞ്ഞെല്ലാ ചോദിക്കാറുണ്ട് ഞാൻ പിള്ളേരോട് പ്രത്യേകിച്ച് ഞാൻ ചോദിക്കാറുണ്ട് കാരണം നമ്മൾ അന്നന്ന് നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞെങ്കിൽ മാത്രമേ നമ്മൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ പത്ര മാധ്യമങ്ങളിൽ കൂടിയാണ് ഏറ്റവും കൂടുതൽ അറിയുന്നത് നമ്മൾ ടിവിയിൽ കൂടി വാർത്തകൾ കേൾക്കുമ്പം അറിയുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോലും പ്രിൻ്റഡ് മീഡിയയിൽ കൂടെ അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പത്രങ്ങൾ വഴി ദിനപത്രങ്ങൾ ദിനപത്രങ്ങളിലൂടെ വരുന്ന കാര്യങ്ങളാണ് നമ്മളെ കൂടുതൽ സ്വാധീനിക്കുന്നതും നമ്മൾ അതനുസരിച്ച് വേണം നമ്മൾ പറയാറുണ്ടല്ലോ ഒഴുക്കിനെതിരെ നീന്തിയിട്ട് കാര്യമില്ലെന്ന് ഒഴുക്കിന് എതിരെ നീന്താൻ പോയാൽ എത്ര എത്ര നേരം നീന്താൻ പറ്റുമെന്ന് നമ്മൾ സമൂഹം എങ്ങോട്ട് പോകുന്നോ ആ ഒരു രീതിയിലേക്ക് നമ്മൾ മാറാതിരിക്കാൻ പറ്റത്തില്ലല്ലോ നമുക്ക് അങ്ങനെ മാറണമെങ്കിൽ ആ മാറ്റങ്ങൾ നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ പത്രങ്ങൾ വായിക്കണം അതുപോലെ തന്നെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നമുക്ക് എങ്ങാനെയാണ് നമുക്ക് ഒരു വ്യവസായ സംരംഭകരാണങ്കിൽ തീർച്ചയായിട്ടും രാഷ്ട്രീയ മാധ്യമങ്ങളെ കുറിച്ച് നമുക്ക് നല്ല ധാരണയുണ്ടാവണം ധാരണയില്ലെങ്കിൽ അതിൻ്റെ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള പോളിസികൾ ആയിരിക്കുകയില്ല അല്ലെങ്കിൽ അവരുടെ അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളായിരിക്കില്ല വേറെ ഒരു രാഷ്ട്രീയ പാർട്ടിടെയ്യണെ അപ്പം ഭരണ മാറ്റങ്ങളൊക്കെ നമ്മുടെ വ്യവസായത്തേയും വിൽപ്പന അല്ലേ വാങ്ങൽ വിൽപ്പനകളൊക്കെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ് അതു തന്നെയല്ല മനുഷ്യനാണെങ്കിലും മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് പുതിയ നമ്മൾ പത്രങ്ങൾ വായിക്കുകയും അതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ആണല്ലോ നമ്മൾ ഓരോ മനുഷ്യൻ്റേയും പുതിയ പുതിയ ആവശ്യങ്ങൾ അത് അനുസരിച്ച് പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് പോവാനും നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മൾ അന്നത്തെ ശരിക്കും പിള്ളേർ പറയുന്ന ഇന്നത്തെ ട്രെൻഡുകൾ നമുക്ക് അറിഞ്ഞിരിക്കണം ട്രെൻഡ് അറിഞ്ഞാൽ അല്ലേ അത് അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളു അത് സാധാരണ ഒരു കൊച്ച് കുട്ടിയാണെങ്കിലും പത്രങ്ങൾ വായിച്ച് വായിച്ച് തുടങ്ങിയാലേ അവൻ അവൻ ആ ഒരു ശീലം ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ടും പ്രായമാകുമ്പോഴും അവൻ പത്രങ്ങളൊക്കെ ശ്രദ്ധിക്കത്തുള്ളൂ അതല്ല പഠിക്കുന്ന കാര്യങ്ങളിലാണെങ്കിലും പിള്ളേർക്ക് വരണമെങ്കിൽ കൂടുതലും ജനറലായിട്ടുള്ള കാര്യങ്ങൾ കൂടുതലും അറിയണമെങ്കിൽ പത്രങ്ങൾ വായിക്കണം അതുപോലെ തന്നെ പുതിയ പുതിയ കണ്ട് പിടുത്തങ്ങളെ കുറിച്ചൊക്കെ അറിയണെ നമ്മൾ അതിന് പത്രം ടി വി ഉണ്ടായിരിക്കാം എങ്കിലും പത്രങ്ങളിലല്ലേ ഡീറ്റൈൽ ആയിട്ട് പ്രിൻ്റഡ് ആയിട്ടുള്ള ഒരു സാധനം വരുമ്പോഴാണ് നമ്മൾ അതിനെ കൂടുതൽ ശ്രദ്ധിക്കുന്നത് അത് വായിച്ചു നമ്മളൾ അങ്ങനെ ഒരു ശീലം ഇടുകയാണെങ്കിൽ അത് ഒരു പരിധി വരെ മുന്നോട്ട് കൊണ്ടു പോകാൻ പറ്റും അത് യുവ തലമുറയെ പ്രത്യേകിച്ച് പ്രോത്സാഹിപ്പിക്കണ്ട കാര്യമാണ് പ്രത്യേകിച്ച് ആരും പറയേണ്ട കാര്യമില്ല എങ്കിൽ കൂടി നമ്മളത് ഞാൻ എല്ലായിടത്തും ശ്രദ്ധിക്കാറുണ്ട് എല്ലാവരേയും വർത്തകളൊക്കെ ശ്രദ്ധിക്കുന്നത് അത് ഇന്ന വർത്ത എന്നല്ല ഞാൻ നമ്മൾ വായിക്കുന്നത് ഞാൻ രാഷ്ട്രീയം വായിക്കും സ്പോർട്സ് വായിക്കും ഈ പറഞ്ഞ സാംസ്കാരിക പരിപാടികളെക്കുച്ചിട്ടുള്ളത് വായിക്കും പിന്നെ പത്രത്തിൻ്റെ ഏറ്റവും ഉൾവശമാണല്ലോ എഡിറ്റോറിയൽ എഴുതുന്നത് അതും വായിക്കും ഓരോ പത്രത്തിനും ഓരോ ചുവയുണ്ടാവും അല്ലെങ്കിൽ അവർക്ക് ഓരോ താൽപ്പര്യങ്ങളൊക്കെയുണ്ടാവും അതിനനുസരിച്ച് ആയിരിക്കും ഇടുന്നത് എല്ലാം വായിക്കാറുണ്ട് അങ്ങനെ വായിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളെ കുറിച്ചൊരു ധാരണയുണ്ട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ഒന്നും അറിയില്ല എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ ഒന്നും അറിയില്ല എന്ന് പറയുന്നത് ശരിക്കും പിന്നെ സമൂഹത്തി നമ്മൾ ഒന്നും കൊള്ളാത്തവനായി പോകുന്ന ഒരു രീതിയിലേക്ക് മാറും ഇപ്പോഴത്തെ യുവജനങ്ങൾ പത്രങ്ങൾ വായിച്ചില്ല എങ്കിൽ ഭയങ്കര പ്രശ്നങ്ങളാണ് കാരണം അവർ ഫോണിന് അകത്ത് കയറിയിരിക്കുക ഈ നേരത്തെ പറഞ്ഞ പോലെ കളികളിൽ ഏർപ്പെടുക വേറെ ഒന്നും അവർ പുറം ലോകത്തെ കുറിച്ച് ചിന്തിക്കുന്നൊല്ല അപ്പം പത്രമെങ്കിലും വായിച്ചെങ്കിലേ അവർക്ക് കുറച്ചെങ്കിലും ഇപ്പോഴത്തെ ജീവിത രീതിയായിട്ട് പൊരുത്ത പെട്ടു പോകാൻ പറ്റുകയുള്ളു അതിനെ ക്റു നമ്മൾ ആലോചിക്കേം വേണം